അതെ ആരായിരുന്നു ആ ഹാ ഹാ ആ ഓക്കെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ആ ഹാ എന്താണ് കഴിച്ചത് എന്ത് കഴിച്ചിട്ടാണ് കിടന്നത് ആ ഓക്കെ ആണല്ലേ ആ ചോറും ബീഫും ആണോ ഇന്ന് കഴിച്ചത് ഇന്നലെ എന്താണ് കഴിച്ചത് ഇന്നലെ ഉണ്ടായിരുന്നോ അപ്പോൾ മിനിഞ്ഞാന്ന് എന്താണ് കഴിച്ചത് മിനിഞ്ഞാന്ന് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചായിരുന്നോ രണ്ട് ദിവസമായിട്ടല്ലേ തുടങ്ങിയിട്ടുള്ളൂ ബീഫ് ഇന്ന് വെച്ചത് തന്നെയാണോ ഫ്രഷ് ആയിട്ടാണോ കഴിച്ചത് അല്ല ഇന്നലെ വെച്ചത് അങ്ങനെ എന്തെങ്കിലും ആണോ ചൂടാക്കിക്കഴിച്ചത് എന്തെങ്കിലും ആണോ നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നതാണോ ബീഫ് ആ അപ്പം ഇതിന് മുന്നേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത് ഇല്ലല്ലേ അപ്പം നമുക്ക് അതായത് നിങ്ങൾക്ക് അടിവയറിലാണോ വേദന അതായത് ഒരു സൈഡ് ആയിട്ടാണോ വേദന നടു വേദന നടു വേദന ഉണ്ടോ നടു വേദന ഉണ്ടല്ലേ അപ്പം മിക്കവാറും മൂത്രത്തിൽ അതായത് ഇങ്ങനത്തെ അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ മിക്കവാറും മൂത്രത്തിൽ അതായത് മൂത്രത്തിൽ കടച്ചിൽ തന്നെയായിരിക്കും അതെ സ്കാനിങ് അതായത് നമുക്ക് സ്കാനിങ് അല്ല ആദ്യം നിങ്ങളൊന്ന് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വന്നോളൂ ആ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് നാളെ ഒന്ന് കാണിക്കാൻ വന്നോളൂ എന്നാൽ കാരണം നമ്മൾ പത്ത് മണി തൊട്ട് നമുക്ക് ഓ പി ടൈം ആണ് എങ്ങനെ ഇല്ല പാരസെറ്റാമോൾ ഒന്നും കഴിക്കേണ്ട അങ്ങനെ പെയിൻ കില്ലർ ഒന്നും കഴിക്കേണ്ട ജസ്റ്റ് ഒന്ന് പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നാളെ ഒന്നിങ്ങോട്ട് പോന്നോളൂ കേട്ടോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ